നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് മെയിനായിട്ട് പി ടി ഉഷ ആണ് അതെലീറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവരാണ് മെയിനായിട്ട് പണ്ട് തൊട്ടേ ഓടിക്കൊണ്ടിരിക്കുന്ന ഒര് ആളെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അപ്പോൾ അവരാണ് നമ്മുടെ അതായത് നമ്മുടെ കേരളത്തില് തന്നെ മെയിനായിട്ടുളൊരു അത്ലറ്റിക് പ്ലെയർ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പിന്നേ ഐ എം വിജയൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് പുള്ളി പോലീസികാരനാണ് പുള്ളി നല്ലൊരു ഫുട്ബോൾ താരമാണ് ഫുട്ബോള് കളിയില് പുള്ളീനെ വെല്ലാൻ വേണ്ടിയിട്ട് വേറെ ആരും അങ്ങനെ ഇല്ലാത്തൊര് രീതിയാണ് ഉള്ളത് ഇവരൊക്കെ നല്ല രീതിയിലുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാരാണ് പിന്നെ അങ്ങനൊക്കെ പല രീതിയിലുള്ള ആൾക്കാരുകള് ഉണ്ട് പഴയ രീതിയില് എന്ന് പറഞ്ഞാല് ഇപ്പം ഞങ്ങളുടെ സ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെയുള്ള ആൾക്കാരുകള് പലരും ഇവിടെ ഇപ്പോൾ ഉണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പുതിയ ഒരു പയ്യനുണ്ട് അവൻ്റെ പേരന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺന്നോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അവനൊക്കെ നല്ല രീതിയില് ഇപ്പോൾ കളിച്ച് ഉയർന്ന് വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഉയർന്ന് വരുന്നുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്